ഹലോ ഇതാരാ എവിടെ പോയിട്ട് വരുകയാ ഡോക്ടറെ കാണാൻ പോയതാ ഡോക്ട്റ് എന്താ പറഞ്ഞത് പ്രെഷറ് ആണോ ഹൈ പ്രെഷറ് ഉണ്ടല്ലോ അല്ലേ നിങ്ങൾക്കിപ്പോൾ എത്രയാ പ്രെഷറ് ഉള്ളത് കൂടുതലാണ് ഉള്ളത് ഭക്ഷണക്രമത്തിൽ നല്ല മാറ്റം വരുത്തിയെങ്കിലേ പ്രെഷറ് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ പരമാവധി ഉപ്പ് കുറയ്ക്കുക ഉണക്കമത്സ്യം അതുപോലെ അച്ചാറ് പപ്പടം എന്നിവയൊക്കെ ഒഴിവാക്കുക ഇറച്ചി മീൻ ഒക്കെ വറുത്ത് കഴിക്കുന്നതും പരമാവധി ഒഴിവാക്കുക കറിവെച്ച് കഴിക്കുക അതുപോലെ പച്ചക്കറികൾ ഇലക്കറികൾ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കലോറി കുറഞ്ഞ ഭക്ഷണം കഴിക്കുക നാരുകളടങ്ങിയ ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുക അതുപോലെ പാൽ പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുക കൊഴുപ്പില്ലാത്ത പാലുൽപ്പന്നങ്ങൾ കഴിക്കുക അതുപോലെത്തന്നെ ദിവസവും വ്യായാമം ചെയ്യാൻ മറക്കരുത്